ഇപ്പോൾ എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം എനിക്കിപ്പോൾ അവനെ ഒരു ഡോക്ടറാകണം എന്നൊക്കെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരച്ഛനമ്മമാർക്കും അവരുടെ മക്കൾ നല്ല രീതീൽ ഉന്നത വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണം എന്ന് ഒരാഗ്രഹവും കാര്യങ്ങളൊക്കെയുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണോ ജീവിക്കുന്നത് നമ്മടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ നമ്മക്ക് വേണ്ടിട്ടാണ് ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവസാന ഘട്ടങ്ങളിൽ അവർ ചിലപ്പോൾ വേറൊരു അതായത് കുടുംബം കാര്യങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള ലൈഫിലേക്ക് പോകും അപ്പോൾ നമ്മളെ ഒന്നും ചിലപ്പോൾ വേണ്ടാണ്ടായിരിക്കാം പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മളവരെ നല്ല നല്ലൊരു നിലയിലെത്തിച്ചിട്ട് വേണം ഒന്ന് മരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും അപ്പം നമുക്ക് കൂടുതലായിട്ടും ആൾക്കാർ നമ്മ മക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്ന് വരണം നല്ലൊരു നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് അപ്പോ നല്ല രീതീല് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജോലിയും കാര്യങ്ങളും ആക്കി കൊടുക്കണം എന്നാണ് എന്റെ ഒരാഗ്രഹം